ആ ഹലോ ഹലോ ഗുഡ് മോർണിംഗ് സാർ അതെ അതെ യെസ് യെസ്

ഓക്കെ സാർ ഓക്കെ ആ മതി നമുക്ക് പോണ്ടിച്ചേരി ഇറങ്ങി കഴിഞ്ഞാൽ ടൗണ് തന്നെയാണ് വരിക നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ടൗണ് തന്നെയാണ് വരുന്നത് അപ്പം സാറ് ഫസ്റ്റ് നമുക്ക് റൂമ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി പാക്കേജ് ആണല്ലോ സാറ് നോക്കുന്നത് എന്തായാലും കാരണം കുട്ടികളെന്ന് പറയുമ്പോൾ ചൈൽഡ് ആയിരിക്കുമല്ലോ എന്തായാലും വളരെ ചെറിയ കുട്ടികൾ ആയിരിക്കുമല്ലോ അല്ലേ ചെറിയ കുട്ടികൾ ഓ ഓക്കെ ഓക്കെ അവർക്ക് ഒരു എന്താണ് പറയുക ചിൽഡ്രൻസ് ഗാർഡനും അങ്ങനെ ആദ്യം ഒക്കെ നമുക്ക് ഒരു വൺ ഡേയിൽ വരുന്നത് കുട്ടികളാണ് കുറേ കൂടെ പ്രിഫെറൻസ് എന്ന് കരുതുക ആണെങ്കിൽ ചിൽഡ്രൻസ് ഗാർഡനും കാര്യങ്ങളൊക്കെ വന്നതു കൊണ്ട് നമുക്ക് നമുക്ക് വരുന്നത് വച്ച് കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം രൂപയാണ് വരിക നിലവിൽ പത്ത് ദിവസത്തേക്ക് നമുക്ക് അത് കുറയ്ക്കാനും പറ്റും നമുക്ക് ഇപ്പോൾ ഒരു ഓഫർ പ്രൈസിലാണ് വരുന്നത് കാരണം ഇപ്പോൾ കുറച്ചും കൂടി എന്താണ് പറയുക ഒരു ഓഫർ പ്രൈസിനാണ് നമുക്ക് കൊടുക്കുന്നത് ഇപ്പം നിലവിൽ എല്ലാവരും കൊടുക്കുന്ന കൂടുതലും ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കിപ്പം കുട്ടികൾക്ക് ഒക്കെ ആണ് സിറ്റി മാളും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് പോണ്ടിച്ചേരി തന്നെ സിറ്റി മാളും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് അപ്പം അത് ഫാമിലിക്കും അതിൽ തന്നെ മാള് തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും ചൈൽഡിനായിട്ട് കുട്ടികൾക്ക് ആണെങ്കിലും നമുക്ക് ഫൈവ് സ്റ്റാറാണ് വരുന്നത് ഫൈവ് സ്റ്റാറാണ് വരുന്നത് അതെ ഫൈവ് സ്റ്റാർ തന്നെ ആണ് വരുന്നത് ഫൈവ് സ്റ്റാറാണ് വരുന്നത് അതിൽ അക്കോമഡേഷനൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഫാമിലി പാക്കേജിൽ വരുന്നതിൽ എസി വിതൗട്ട് എല്ലാ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് വരുന്നുണ്ട് എല്ലാം അവൈലബിളാണ് സാറിന് ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡേ നൈറ്റ് എല്ലാം ഉണ്ട് അതിൽ സാറിന് ഫുഡ് ഉണ്ടാവും അതിൽ ട്രാവലിംഗ് ഉണ്ടാവും അതായത് ഇപ്പോൾ സാറിന് പുറമേ വരുമ്പോൾ ക്യാബ് പിടിച്ചിട്ട് വേണ്ട പുറത്തേക്ക് പോവാൻ നമ്മളെ തന്നെ ക്യാബ് ഉണ്ടാവും അതിൽ തന്നെ അതിൽ സാറിന് അതിൽ നോക്കുന്ന അതായത് നമുക്ക് ഒരു ഇത്ര കിലോമീറ്ററ് ഡിസ്റ്റൻസ് ബേസ്ഡാണ് നമുക്ക് വരിക ഇപ്പോൾ സാറിന് ഒരു ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു സാർ